ഹലോ ആ ഇത് ടൂർസ് ആൻഡ് ട്രാവൽസ് അല്ലേ ആ ഞാൻ ഞാൻ ആ ടൂ ടൂർസ് ആൻഡ് ട്രാവൽസില് നിങ്ങളുടെ ഒരു ഗൈഡിനെ ആവശ്യപ്പെട്ടിരുന്നു എൻ്റെ പേര് അതുൽ എന്നാണ് ഞാൻ ഒരു ചരിത്ര ഗവേഷണ ഒരു ഗവേഷകൻ ആണ് ആ അപ്പോൾ ചരിത്ര ഗവേഷകത്തിൻ്റെ ഭാഗമായി ഞാൻ ഒരു സെമിനാറ് കണ്ടക്റ്റ് ചെയ്യുന്ന് നടത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗം ആയിട്ട് കേരളം സന്ദർശിക്കാമെന്ന ഉദ്ദേശത്തോടുകൂടി ഉദ്ദേശം ഉണ്ട് എനിക്ക് അപ്പോൾ കേരളം ആ കേരളത്തിലെ പുരാതനമായ ആ അങ്ങനെ പുരാതനമായ കാര്യങ്ങളും പിന്നെ അങ്ങനെ സന്ദർശിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ നിങ്ങളുടെ

ആ ഞാൻ ഒരു ബുക്കില് വായിച്ചതാണ് കേരളത്തിലെ അല്ല ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രം സ്ഥിരമായ ക്ഷേത്രങ്ങളിൽ ഒന്നായ ശ്രീ പദ്മനാഭസ്വാമി

അപ്പോൾ അവിടെ ആ അപ്പോൾ അവിടം സ സന്ദർശിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങളെ ഒരു ഗൈഡിനേയും വേണം അപ്പോൾ ചരിത്രം അറിയുന്ന ഒരു ഗൈഡിനെ കിട്ടിയാലും അതിൻ്റെ ചരിത്ര പ്രധാനമായ കാര്യങ്ങൾ അറിയാൻ കൂടി ആണ് ഞാൻ വിളിച്ചത് ആ അതെ അതെ ആ ഞാൻ വായിച്ചിട്ടുണ്ട് ആ അതെ അതെ ആ ഞാൻ വായിച്ചിട്ടുണ്ട്

വേറെ എന്റെ സംശയം എന്ന് പറഞ്ഞാല് ഇത്രയും സാധാരണക്കാർ താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഇത്രയും സമ്പന്നമായ ക്ഷേത്രം അത് ഒരു സേഫ്റ്റി അല്ല എന്ന് തോന്നി

ഓ അതുകൊണ്ടാണല്ലേ അല്ല ഈ നിലവറ ഉള്ളത് കൊണ്ട് മാത്രം ആണോ ഇതിനെ ഇത്രയും സമ്പന്നമായ ക്ഷേത്രം എന്ന് വിളിക്കുന്നത്

ആ അപ്പോൾ കൂടുതൽ കാര്യങ്ങള് യാത്രാ മദ്ധ്യേന്നെ അറിയാം ഞാൻ എന്തായാലും അടുത്ത മാസം ഇരുപത്രണ്ടാം തീയ്യതി ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പോവാൻ ആ അതെയാ ആ വിളിക്കാം വിളിക്കാം ആ തീർച്ചയായും തീർച്ചയായും